ഹോം തിയറ്റർ ഞാൻ വാങ്ങി ഒരു ക്വാളിറ്റി ഇല്ല കാരണം വീട്ടിൽ വച്ച് വച്ചു പാട്ടിന് ഒച്ചയില്ല എന്താ പറയുക കരകരായെന്ന് ഒരൊച്ച ഈ പ്രൊഡക്ട് ഒട്ടും ഗുണമില്ല കാരണം എന്താ വച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മൾ ഇതൊന്ന് പാട്ടു കേൾക്കാൻ മേടിച്ചതല്ലേ ഇത് വെറുതെ മേടിച്ചത് അല്ലല്ലോ ഈ പ്രൊഡക്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ എൻ്റെ ഒരു വീട്ടിൽ ഞാൻ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് എന്നെ ഒരുപാട് വന്ന് ചീത്ത പറയുകയൊക്കെ ചെയ്തു ഒച്ചയില്ല സൗണ്ടും ഉല്ല കരകരപ്പ് ഇത് വളരേ മോശപ്പെട്ട പ്രോഡക്ട് ആണ്